ഒരു പുതിയ സിം കാർഡിനു വേണ്ടി നമ്മളപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആധാർ കാഡ് സമർപ്പിക്കേണ്ടതാണ് ആധാർ കാഡിലെ നമ്പർ ഉപയോഗിച്ചാണ് നമുക്ക് സിം കാഡ് തരിക നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഫോട്ടോയും ആധാർ കാഡിൻ്റെ നമ്പറും വെച്ചാണ് നമ്മൾ പുതിയൊരു സിം കാഡിനപേക്ഷിക്കേണ്ടത് ആധാറും ആധാറിൻ്റെ ആവശ്യമെന്താണ് എന്താണെന്നു വെച്ചാൽ നമ്മുടെ നമ്മുടെ നമ്മുടെ നമ്മളാരാണെന്നും നമ്മുടെ പെട്ടെന്നു തിരിച്ചറിയുകയും തക്ക രീതിയിലും തിരിച്ചറിയുന്നതിനും വേണ്ടിയാണ് നമ്മളീ ആധാർ കാഡ് നൽകേണ്ടത് ആധാർ കാഡ് നമ്പർ വെച്ചാണ് നമ്മളിന്ത്യൻ പൗരനാണെന്നോ അല്ലെങ്കിൽ ഇതു കേരളത്തിൻ്റെ ഏത് സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നതെന്നും നമ്മുടെ അഡ്രസ്സ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നല്ലൊരു പദ്ധതിയാണ് ആധാർക്കാഡിലേ വിവരങ്ങൾ ഒരിക്കലുമത് ചോർന്നു പോകത്തില്ല എൽ നമ്മുടെ എല്ലാ ഡീറ്റെയിസുമത് വളരെ ഇതായിട്ടു തന്നെ അതു നിലനിൽക്കുന്നതാണ് പക്ഷേ ഒരു സിം കാഡിന് നമ്മളപേക്ഷിക്കുമ്പോൾ നമുക്കിതു നിർബന്ധമാണ് നമ്മുടെ ഫോട്ടോയും നമ്മൾ കണ്ണിൽ സ്കാനിങ്ങ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അതു കൊണ്ടു തന്നെ നമുക്കെന്തെങ്കിലുമൊരു ക്രൈമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാലും പെട്ടെന്നു തന്നെ നമുക്ക് നമ്മൾ തിരിച്ചറിയാനും അല്ലേ ഇപ്പം മൊബൈൽ കളഞ്ഞു പോയാലും നമ്മുടെ മൊബൈലിന് സർച്ച് ചെയ്ത് അതു നമുക്ക് കണ്ടെത്തുന്നതിന് നമ്മുടെ ഫോൺ ഫോൺ നമുക്ക് കണ്ടെത്തുന്നതിനുമൊക്കെ നമുക്ക് നമ്മളെ സഹായിക്കുന്നത് ആധാർ കാർഡിലെ ഈ നമ്പർ വെച്ച് അല്ലേ അവിടുത്തെ സ്കാനിങ്ങ് വെച്ചു തന്നെയാണ് അതു കൊണ്ടു തന്നെ നിർബന്ധമായുമെല്ലാവരുമൊരു സിം കാഡിനായിട്ട് അപേക്ഷിക്കുമ്പോഴത്തേക്ക് നമ്മളാധാർ കാഡ് നിർബന്ധമായും ആധാർ കാഡ് നമ്പർ നിർബന്ധമായും കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫോൺ നഷ്ടപ്പെടുകയോ മറ്റെന്തെങ്കിലുമാവശ്യങ്ങൾക്ക് നമ്മൾ നമുക്കതു നേടിയെടുക്കുകയോ ചെയ്യണമെങ്കിൽ സാധിക്കുകയുള്ളൂ അതു കൊണ്ടു തന്നെ എല്ലാവരും ആധാർ കാഡ് നിർബന്ധമായും നൽകുക പുതിയ സിം കാഡ് ലഭിക്കണമെങ്കിൽ അവനവൻ്റെ ആധാർ കാഡ് തന്നെ വേണം നേരത്തത്തെപ്പോലെയല്ല ഇപ്പം പുതിയ സിം കാഡിനപേക്ഷിക്കുമ്പോൾ ആധാർ കാഡ് വേണം ആധാർ കാഡിലൂടെ നമുക്ക് നമ്മുടെ വിവരങ്ങൾ ശേഖരിക്കുവാനും നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടു പോയാലത് തിരിച്ചെടുക്കുവാനൊക്കെ സാധിക്കുന്ന സാധിക്കുന്നതിനു വേണ്ടി ആധാർ കാഡ് നിർബന്ധമാണ് ഏതു മേഖലയിൽ ചെന്നാലും നമ്മൾ ആധാർ കാഡ് നമുക്ക് നിർബന്ധമാണ് ഇപ്പോൾ കുട്ടികളെയൊക്കെ മിസ്സായിപ്പോകുന്ന കാലമാണ് അപ്പം ആ അങ്ങനെയൊക്കെ സംഭവിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ ആധാർ കാഡിലെ നമ്പർ വെച്ച് നമുക്ക് കണ്ടു പിടിക്കാൻ വളരെ പെട്ടെന്നു തന്നെ സാധിക്കും ആ കുട്ടിയെവിടെയാണ് എവിടെ നിന്നു വന്നെന്നോ എങ്ങനെയാണെന്നോ അവൻ്റെ ലാങ്വേജെന്താണെന്നോ എല്ലാം നമുക്കതിൽ നിന്ന് ആധാർ കാർഡിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ് അത്രയും പ്രാധാന്യത്തോടെ തന്നെയാണ് നമ്മളൊരു സിം കാഡിന് ആ മൊബൈലിൽ നമുക്കൊരു സിം കാഡിനപേക്ഷിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആധാർ കാഡ് വളരെ അത്യാവശ്യമാണ് സ്കാൻ ചെയ്ത് ആധാർ കാഡിൻ്റെ സ്കാൻ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പൂർണ്ണ വിവരം ഒരു വ്യക്തിയുടെ പൂർണ്ണ വിവരം നമുക്കവിടെ ലഭിക്കുന്നതാണ് ആ വ്യക്തിയേക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ സാധിക്കും എങ്കിലും പൊതു സമൂഹത്തിന് നമ്മുടെ ഡീറ്റെയിൽസോ മറ്റുള്ള സീക്രെട്ടായ കാര്യങ്ങളോ ഒന്നും പുറത്തു പോകുകയുമില്ല ആ പക്ഷെ നമ്മുടെ മിത്തമായ കാര്യങ്ങൾ